എനിക്കിപ്പോൾ ഞാൻ ഒരുപാട് നാളായിട്ട് ആഗ്രഹിച്ചതായിരുന്നു നമ്മളെപ്പോഴും ശുദ്ധമായ വെള്ളം അത് മഴവെള്ളം എന്നൊക്കെ പറയുമെങ്കിലും നമ്മൾ കിണറ്റിലെ നമ്മൾ കിണർ കുഴിച്ച് എത്രയോ കാലങ്ങൾ കെട്ടിക്കിടന്ന വെള്ളമാണ് നമ്മൾ പനിനീർ കുടിക്കുന്നത് പോലെ ഏറ്റവും ശുദ്ധമായിട്ട് എന്നിട്ട് കുടിക്കുന്നത് അപ്പം ഈ അടുത്താണ് ഞങ്ങളുടെ ഭാഗത്ത് ഒക്കെ ഈ നമ്മുടെ ഞാൻ താമസിക്കുന്ന ഒരു ഗ്രാമപ്രദേശങ്ങളിലാണ് അപ്പോൾ അവിടെ എല്ലാ സ്ഥലത്തും പിന്നെ കിണറിലെ വെള്ളം പരിശോധിക്കാൻ വന്നു പക്ഷേ ഒട്ടു മിക്ക സ്ഥലത്തേയും വെള്ളം ശുദ്ധമാണെന്ന് മനസ്സിലായിട്ടോ അവർ എന്തൊക്കെയോ അതിൻ്റെ രാസപ്രവർത്തനങ്ങളും അതും ഇതും ഒക്കെ നോക്കിയിട്ടാണ് പറയുന്നത് അതുപോലെ പൈപ്പ് ലൈനും ഈ ഭാഗത്തൊക്കെ വന്നിട്ടുണ്ട് അപ്പം ആർക്കും കുടിവെള്ളത്തിൻ്റെ ഒരു ബുദ്ധിമുട്ടൊന്നും ആരും ഇപ്പം അങ്ങനെ അനുഭവിക്കുന്നില്ല ഈ നമ്മുടെ ഏരിയയിൽ പുറത്ത് എവിടെയെങ്കിലും ഉണ്ടോ എന്ന് എനിക്ക് വലിയ പിടുത്തം പോരാ അപ്പം ഇത് നമ്മുടെ ഗവൺമെന്റിൻ്റെ ആണ് അത് എന്തായാലും ഇത് ശുദ്ധജലം ആണോന്നുള്ളത് പരിശോധിക്കണം എന്നുള്ള ഓഡർ ഇട്ടതും എല്ലാവരും ഓരോ നല്ല ശുദ്ധമായ കുപ്പിയിലാക്കിയിട്ട് ഈ വെള്ളം കൊണ്ട് കൊടുത്തതും പരിശോധിച്ചതും എല്ലാം എനിക്ക് ഒരുപാട് സന്തോഷം തോന്നിയ നിമിഷങ്ങളാണ് അത് കാരണം നമുക്കത് ശുദ്ധമാണ് നമ്മൾ കുടിക്കുന്നത് തിളപ്പിച്ചാറിയാതെ കുടിക്കാവൂ എന്ന് പറഞ്ഞാൽ പോലും ഞാനൊക്കെ എപ്പഴും കെണറ്റിൽ നിന്നു കോരിയിട്ട് നേരെ പച്ചവെള്ളം കുടിക്കുന്ന ഒരു ശീലമാണ് എനിക്കൊക്കെ ഉള്ളത് എൻ്റെ മക്കൾക്ക് ആയാലും അതുപോലെ തന്നെയാണ് അപ്പോൾ ഈ ഓഡറ് വന്നപ്പോൾ ഞാൻ സന്തോഷം നമുക്കും അറിയാലോ നമ്മൾ കുടിക്കുന്ന വെള്ളത്തിൽ എന്തൊക്കെയാണുള്ളത് അത് ശുദ്ധമാണോ അതിൽ എന്തെങ്കിലും ബാക്ടീരിയേൻ്റെ ഒക്കെ അംശങ്ങൾ ഉണ്ടോ അങ്ങനെയൊന്നും ഇല്ലാന്നുള്ളത് ആ പരിശോധനയിൽ മനസ്സിലായി ഈ ഭാഗത്തുള്ള ഒരു വിധം എല്ലാ വീടുകളിലെയും ഇത് നോക്കി പിന്നെ കിണറ്റിലെ വെള്ളം പരിശോധിച്ചു അപ്പം എല്ലാ വീട് എല്ലാവരും കുടിക്കുന്ന നല്ല ശുദ്ധജലമാണെന്ന് മനസ്സിലായി അപ്പോൾ ഒരുപാട് സന്തോഷവും ഉണ്ട് അങ്ങനെയൊരു ഓഡറൊക്കെ ഇട്ടതിന് ഗവൺമെന്റിനോടും എല്ലാം ഞാൻ നന്ദി പറയുന്നു അത് നമ്മുടെ ഹെൽത്തിന്നൊക്കെയാണ് കേട്ടോ ആൾക്കാർ വന്നിട്ട് അത് പരിശോധിച്ചത് അവർക്കൊക്കെ ഞാൻ നന്ദി പറയുന്നു